ഇവിടെ ഈ ഒരു എന്താ പറയുക പ്രാദേശിക കലകളെയും കരകൗശല വിദഗ്ധരെ ഒക്കെ സ അവരെ സപ്പോർട്ട് ചെയ്യാൻ ധനസഹായമായിട്ട് ധനമായിട്ടും അല്ലാതെ വായ്പ്പകളായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സം സർക്കാരിൻ്റെ സംരംഭങ്ങളുണ്ട് പ്രധാനപ്പെട്ടതാണ് അസിസ്റ്റൻറ്റ് സ്കീം ഫോർ ഹാൻഡിക്രാഫ്റ്റ്സ് ആർട്ടിഷൻസ് അപ്പോൾ ഈ ഒരു സ്കീമിൽ തന്നെ സുരു സുരഭി കെ എസ് ബി സിയിൽ നിന്നൊക്കെ ഉള്ളവർ തന്നെ അവർ ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് സെക്റ്റ് സെക്ടറിൽ ഒരുപാട് ഹെൽപ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ അവർ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുക ദെൻ എന്തു ചെയ്യും കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് ഈ പറഞ്ഞതു പോലെ ഇതിലൂടെ എന്തൊക്കെ കിട്ടും ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കും അവർ പിന്നെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്വിപ്മെൻറ്റ്സും പണിയായുധങ്ങൾ അങ്ങനുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ വേണം അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഒരു എമൗണ്ട് കൊടുക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ പിന്നെ എസ് സി എസ് ടി ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയും ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ കൂടുതലും ഈ മണ്ണ് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുക ചിരട്ടകളിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക അങ്ങനെ ഒക്കെയുള്ള ആൾക്കാർ എൻ്റെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്